ഇരുവത്തിയാറ് ഒന്ന് ആയിരത്തിത്തൊള്ളായിരത്തി അൻപത് പതിനഞ്ച് എട്ട് ആയിരത്തിത്തൊള്ളായിരത്തി നാൽപത്തിയേഴ് ഒന്ന് പതിനൊന്ന് ആയിരത്തിത്തൊള്ളായിരത്തി അൻപത്തിയാറ് ഏഴ് നാല് ആയിരത്തിത്തൊള്ളായിരത്തി അൻപത് ഒന്ന് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ്